എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മൃഗം എന്നു വച്ചാൽ വളർത്തുമൃഗങ്ങളെന്നു വച്ചു കഴിഞ്ഞാൽ ഈ പശു ആട് പോത്ത് അതുപോലെതന്നെ പട്ടിക്കുട്ടി പൂച്ചക്കുട്ടി അങ്ങനത്തേതിനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താൽപര്യങ്ങൾ ഏറ്റവും കൂടുതൽ താൽപര്യം പട്ടിയോടാണ് അയിറ്റിങ്ങകൾ നമ്മൾ പറഞ്ഞാൽ നല്ല അനുസരണയൊക്കെയായിരിക്കും അതുപോലെ നല്ലത് നല്ല എനിക്ക് നോക്കാൻ വല്ലാണ്ട് ഇൻട്രെസ്റ്റ് ആണ് പട്ടികളെ നല്ല രസമാണ് പട്ടികളെ നോക്കാൻ തന്നെ അവരെ കളിയും അതുപോലെ പൂച്ചകളെ കളിയും പശുക്കളെ ആയാലും എന്തായാലും കളിയൊക്കെ നല്ലതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്തതെന്നു വച്ചു കഴിഞ്ഞാൽ പന്നികളെയാണ് എനിക്ക് പന്നികളെ തീരെ ഇഷ്ടമല്ല അതുപോലെ നമുക്ക് പോത്തായാലും എന്തായാലും വളർത്താൻ എനിക്ക് നല്ല ഇഷ്ടമാണ് അത് പോത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പശുവൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു പക്ഷേ പട്ടിക്കുട്ടിയുണ്ട് ഒരു നല്ല പട്ടിക്കുട്ടിയുണ്ട് പട്ടികുട്ടീനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നു വച്ചാൽ പൂച്ചപ്പട്ടികളെയാണ് അയിറ്റിങ്ങളെ കാണാൻ തന്നെ നല്ല ക്യൂട്ട് ആണ് നല്ല രസമാണ് അതുപോലെ പൂച്ചയായാലും നല്ല രോമമുള്ള ടൈപ്പ് പൂച്ചയെയാണെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം